ഹലോ ടെലിക്കോം സർവീസ് അല്ലേ നമുക്ക് ഒരു സിമ്മെ എടുക്കാനായിരുന്നു

ഏതൊക്കെ ഉള്ളത് അവിടെ ആ എയർടെല്ലൊക്കെ എന്താണ് റേറ്റ് വരുന്നത് ഓഫർ ഉണ്ടാകുമോ ആ എന്തൊക്കെയാണ് ഡോക്യൂമെൻറ്സ് വേണ്ടേത്

ആ എവിടെ ഇതിന്റെ സെൻറ്റർ വരുന്നത് സെ്റർ എവിടെ വരുന്നത്

ഇല്ല ഇന്ന് വരില്ല ബി അല്ലന്നെ എന്തോ ഓഫറുണ്ടോ ആ ഫ്രീ സിമ്മാ ഫ്രീ സിമ്മാന്നോ

ആ വി ഐ എത്ര എത്ര ജീ ബി ആണ്

എന്നാൽ ഞാൻ വിളിക്കാം പറയാം ആ താങ്ക് യൂ